എൻറെ ഫസ്റ്റ് പ്രോഡക്ട്ന്ന് വെച്ചിട്ട്ണ്ടെങ്കില് ഗ്യാസ് ആണ് അത് നമ്മുടെ പാചക വാതക ഗ്യാസ് ആണ് പിന്നെ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇപ്പം അയിന്റെ പോസിറ്റീവ് മെയിനായിട്ട് പറയുകയാണെങ്കില് വെച്ചിട്ടുണ്ടെങ്കില് അതായത് പണ്ടത്തെ കാലത്തൊക്കെയാണ് കൂടുതല് വിറക് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് എല്ലാവരുടെയും വീട്ടിലും ഗ്യാസില്ലാതെ വീട് വളരെ കുറവാണ് പിന്നെ അതായത് പിന്നെ ഗ്യാസിൻറെ ഉപയോഗം കൊണ്ട് നമുക്ക് വളരെ നല്ല കാര്യമാണ് പിന്നെ നമ്മളിപ്പം പെട്ടന്ന് നമുക്കൊരു ഗ്ലാസ് ചായ വെക്കണമെങ്കിലും കാപ്പി വെക്കണമെങ്കിലും ഒക്കെ നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ടാണെങ്കിൽ നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് എല്ലാം നടക്കും അത് പിന്നെ അതുപോലെ നമുക്ക് കുക്കറില് കൂക്കറില് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കൂക്കറിലോക്കെ കറി വെക്കു ആണെങ്കിലും അങ്ങനെയുള്ള അതൊക്കെ നമുക്ക് പെട്ടന്ന് നടക്കുന്ന കാര്യമാണ് പക്ഷേ നമ്മള് അതേസമയം അടുപ്പിലാണ് വെക്കുന്നതെങ്കിൽ നമുക്കതു ഭയങ്കര ബുദ്ധിമുട്ടാണ് അടുപ്പ് അടുപ്പ് കത്തി വരണം പിന്നെ ചായ ആണെങ്കിലും കാപ്പി ആണെങ്കിലും തിളയ്ക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് നമ്മുടെ അടുപ്പില് നമ്മളിങ്ങന ഭക്ഷണം അതായത് ഭക്ഷണത്തിൻറെ പാത്രങ്ങള് കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ നമുക്ക് അടിയില് കരിപിടിക്കും അപ്പോൾ അതൊക്കെ തേച്ചൊരച്ച് കഴുകണമെങ്കിൽ നല്ല പണിയാണ് പിന്നെ പക്ഷെ അതു പോലെ തന്നെ ഗ്യാസിലാണെങ്കിൽ നമുക്ക് കരി എന്ന് പറഞ്ഞ സംഭവം ഒരു തുള്ളി പോലും പിടിക്കില്ല നമ്മുടെ പാത്രങ്ങളെ പത്രങ്ങളൊക്കെ എപ്പഴും നമ്മളുടെ പത്രങ്ങളൊക്കെ പുത്തൻ പുതു പുതു പുത്തൻ പുതു പോലെ എപ്പോഴും ഇരിക്കും